ഹലോ ഞാന് നമുക്ക് എനിക്ക് ഒരു വെഡ്ഡിംഗിൻ്റെ ഒരു കാറ്ററിംഗ് പരിപാടിയായിരുന്നു അപ്പോള് എന്റെയൊരു കൂട്ടുകാരനായിട്ട് വരും ഈ വെഡ്ഡിംഗിൻ്റെ പരിപാടി അപ്പോള് ഞാനാണീ പരിപാടിയൊക്കെ നടത്താനായിട്ടിരിക്കുന്നത് ആ അപ്പോള് ആ പറയൂ നിങ്ങളില് നിന്നാണ് ഞാന് സർവീസ് പ്രതീക്ഷിക്കുന്നത് അപ്പോള് അതിൻ്റെ ഡീറ്റെയ്ൽസൊന്ന് പറയാമോ

ഒരു ഫൈവ് ഹൺഡ്രഡിന്റെയൊക്കെ ഒരു പ്ലേറ്റ് മതി മൊത്തമൊരു അറുന്നൂറ് പേര് കാണും

ആ അടുത്ത തിങ്കളായ്ചയൊക്കെയായിട്ട് വരും

അതെല്ലാം ഉൾപ്പെടുത്തണം നമുക്ക് ഫുള് കാര്യങ്ങളും ഫുള് കോസ്റ്റാണ് നമുക്ക് ഫുള് നിങ്ങളുടെ രീതിയിൽ നിന്നുള്ളൊരു ഇതാണ് വേണ്ടത് നമുക്ക്

വേറെ എന്തൊക്കെ ഇതാണ് പറഞ്ഞുകൊള്ളൂ ആ അത് ഇവൻ്റ് അത് അത് നിങ്ങള് തന്നെ എടുത്തുകൊള്ളൂ ഇല്ല ഞാൻ ആ വാർത്തയോ വേറെ ഫുഡിൻ്റെ കാര്യത്തില് അഡീഷ്നലായിട്ട് സ്പെഷ്യലായിട്ട് കുറച്ചുകൂടെ സാധനങ്ങള് ഉൾപ്പെടുത്താമോ അതായത് ഇപ്പം നമ്മൾ മന്തി റൈസും പിന്നെയല്ലാതെ പിന്നെ പൊറോട്ട അങ്ങനെ അല്ലെങ്കില് പുതിയ പുതിയ പുതിയ പുതിയ ഡിഷും കാര്യങ്ങളുമൊക്കെയാണ് നമ്മള് പ്രതീക്ഷിക്കുന്നത് അപ്പോള് അതെന്തൊക്കെയാണുള്ളതെന്ന് അറിയാമോ ആ ഓക്കെ ആ ഇത്രയെയുള്ളൂ ഓക്കെ എന്നാല്